കലയോടും കരകൗശലത്തോടുവൊക്കെ താൽപ്പര്യമുണ്ടാകണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു കല ഉണ്ടായിരിക്കണം കാരണം എന്നാലെ നമുക്കത് കാണുമ്പോൾ ഒരു കൗതുകവും എങ്ങനെയാണത് ചെയ്തത് എന്നുള്ള ആ ഇതറിയാനുള്ള ഒരു സ ത്വരയുണ്ടാകുള്ളു അതുകൊണ്ട് നമ്മൾ കല കല അവനവൻ്റെ ഉള്ളിലുണ്ടാകണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം പിന്നെ കലയോടും കരകൗശലത്തോടുമുള്ള താൽപ്പര്യമൊക്കെ ഇവിടെ വളർന്ന് വന്നതെന്ന് പറയണത് പണ്ടുള്ള ആൾക്കാർ കൂടുതലും കരകൗശല വസ്തുക്കളാണല്ലോ ഉണ്ടാക്കിയിരുന്നത് ചിരട്ടയിലും തടിയിലും ഒക്കെ ഉള്ള സാധനങ്ങളൊരുപാട് ഉണ്ടാക്കാറുണ്ടായിരുന്നു പിന്നെ ഇപ്പം തന്നെ മണ്ണിലുള്ളത് ക്ലേയിലുള്ളത് ഒക്കെ പല സാധനങ്ങളും ചെയ്ത് വക്കുന്നുണ്ട് ഇതൊക്കെ കുട്ടികൾ കണ്ട് വരുമ്പോൾ അവർക്കും അതിൽ താൽപ്പര്യം തോന്നും പിന്നെ സ്കൂളിലും ഇപ്പോൾ ഈ കരകൗശല പ്രദർശനവും അതും ഇതും വക്കാറുണ്ട് പിള്ളേരെക്കൊണ്ട് അതെല്ലാം ചെയ്യിക്കാറുണ്ട് പിന്നെ കോളേജിലായിരുന്നാലും കുട്ടികൾക്കതൊക്കെ പഠിക്കാനുള്ള അവസരമുണ്ട് അപ്പം അങ്ങനെയൊക്കെ വരുമ്പം സ്വാഭാവികമായും കലയോടും കരകൗശലത്തോടുമുള്ള താൽപ്പര്യം ഇവിടെ വളർന്ന് വരേന്നെ ചെയ്യും പിന്നെ എനിക്ക് ഇതിനോട് താൽപ്പര്യം തോന്നിയെന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ എന്തെങ്കിലും കിട്ടി കഴിഞ്ഞാൽ അത് വെച്ച് എന്തെങ്കിലും ഒക്കെ സാധനങ്ങളുണ്ടാക്കുവായിരുന്നു വടി ഒരു കമ്പക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ച് നന്നായിട്ടുള്ള ഊന്ന് വടി പിന്നെ വേരക്ക കിട്ടി കഴിഞ്ഞാൽ അത് വീട്ടിൽ അലങ്കരിച്ച് വെക്കാനുള്ള എന്തെങ്കിലും ഇതായിട്ടൊക്കെ ഉണ്ടാക്കി ഒക്കെ വെക്കുവായിരുന്നു അതൊക്കെ കണ്ടതിന് ശേഷമാണ് എനിക്കും താൽപ്പര്യം തോന്നിയത് പിന്നെ വലിയ തേങ്ങയുടെ ചിരട്ടയെടുത്ത് രണ്ട് സ്പീക്കറൊണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് വെക്കണതൊക്കെ വാങ്ങിക്കയാണ് ചെയ്യണത് പക്ഷേ എന്നാലും ആ ചിരട്ട കണ്ടപ്പോഴുള്ള ആ ഒരു കൗതുകത്തിൽ അങ്ങനെ ചെയ്തെടുത്തതാണ് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ ഞങ്ങളും കുഞ്ഞിലെ ഇതക്കെ കണ്ട് വളർന്നത് കൊണ്ടായിരിക്കണം ഞാനും അനിയനും ഒക്കെ പിന്നെ ചിരട്ടയൊക്കെ പൊട്ടിച്ച് അതിനെ എടുത്ത് പിച്ചാത്തിയൊക്കെ വെച്ച് ദ്വാരമൊക്കെ ഇട്ട് ഉരച്ചൊരച്ച് പാറയിൽ കൊണ്ടിട്ട് ഉരക്കും ഉരച്ചൊരച്ച് മോതിരമൊക്കെ ഉണ്ടാക്കാറുണ്ടായിരുന്നു പിന്നെ അതക്കെ തന്നെയാണ് ഞങ്ങളും ചെയ്തിട്ടുള്ളത്